മുപ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നാല് ആറ് രണ്ടായിരം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട്